നമ്മുടെ പ്രദേശത്ത് പല രീതിയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്രദേശത്ത് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ താലി മഹാ ശിവക്ഷേത്രമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു സ്ഥലമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചാണ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കാരണം നൈറ്റ് ഒക്കെ നമുക്ക് ഒരു എട്ട് എട്ടര വരെ ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണിപ്പോൾ നമുക്ക് അവിടെ ചുരണ്ടി ഐസ് പിന്നെ എന്താ പറയുക ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട പൈനാപ്പിൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഉള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് മാനാംചിറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഒരു ചിറപോലിങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് അവിടെ രാത്രി ആൾക്കാര് നല്ല രീതിയിൽ അവര് സൊറ പറയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടീട്ട് മാനാംചിറയിൻ്റെ ചുറ്റുപാടുമാണ് പോകാറുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴശ്ശിരാജ ആർക്കിയോളോജിക്കൽ ഡിപ്പാർട്മെന്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പാട് ബീച്ചുണ്ട് കാപ്പാട് ബീച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വാസ്കോഡഗാമ ആദ്യമായിട്ട് കാലുകുത്തിയ ഒരു സ്ഥലമാണ് കാപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ നമുക്ക് ചരിത്ര പ്രധാനമായിട്ടുഉള്ള സ്ഥലങ്ങളൊക്കെയാണ്